ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതുപയോഗിക്കുന്നത് നമ്മുടെ ടൈം മാനേജ് ചെയ്യാനാണ് നമ്മൾ പിന്നെ എളുപ്പത്തിനുവേണ്ടി ചെയ്യുന്നു പക്ഷേ തുറന്ന പാത്രങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിനാണ് ഏറെ രുചിയുള്ളത് കാരണം തുറന്നു നമ്മൾ പാകം ചെയ്ത് അത് വേവിച്ച് ഫസ്റ്റ് തൊട്ടേ അത് വേവിച്ചെടുക്കുമ്പം അതിനു അതിൻ്റെതായ ടേസ്റ്റുണ്ട് കുക്കറിൽ വച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതിനേക്കാളും ഇത് ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ടേസ്റ്റുണ്ട് പക്ഷേ നമ്മുടെ ടൈംമിനും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളുടെ ലാഭത്തിനും വേണ്ടിയാണ് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ എളുപ്പ മാർഗ്ഗത്തിനുവേണ്ടി പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നു പക്ഷേ ടേസ്റ്റ് ഭക്ഷണത്തിനു കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാണ്ടുതന്നെ വേവിച്ചെടുക്കുന്നതാണ് അല്ലെങ്കിൽ അടുപ്പിൽ വച്ചോ ഒക്കെ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ടേസ്റ്റ് വച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാണ്ട് കുക്കറിനെക്കാലും അല്ലാണ്ടുള്ള പാചകരീതിയാണ് ടേസ്റ്റ് രണ്ടും രണ്ടുതരത്തിലുള്ള രുചി ആയിരിക്കും